ആ എന്തായിരുന്നു ചേച്ചി ആ ഞാൻ തുണി തയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു ആ ചേച്ചി അതെ ആ തുണി തികയുമോയെന്നറിയില്ല ഞാന് കഴിഞ്ഞദിവസം കട്ടപ്പന പോയപ്പോള് എടുത്തതായിരുന്നു എനിക്കതൊരു ഫ്രോക്ക് തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ചേച്ചി ഫ്രോക്ക് തയ്ക്കുന്നതല്ലേ ആ ചേച്ചി അത് കോട്ടൺ തുണിയല്ലേ കോട്ടൺ തുണി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വി ഷെയ്പ്പ് വെച്ച് വി കോളര് പോലെയൊക്കെ വെച്ച് തയ്ക്കുതയാണെങ്കില് നല്ലതല്ലേ ചേച്ചിക്ക് അവിടെത്തന്നെ വേറെ മെറ്റിരിയല് ഉണ്ടോ അതായത് തുണിയൊക്കെ അങ്ങനെയൊക്കെ ഇരിപ്പുള്ളതാണോ ആണെങ്കില് ആ വി കോളറില് ഇത്തിരി ലെയ്സോക്കെ വെച്ചാല് നല്ലതായിരിക്കുമോ ഇപ്പോഴത്തെ ഒരു ഫാഷൻ അങ്ങനെയാണല്ലോ ആ ചേച്ചിക്ക് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടോ ഇപ്പോഴത്തെ ആ കൈയ്ക്കെനിക്ക് ത്രീ ഫോർത്ത് വെയ്ക്കുന്നതാണ് മുട്ടിൻ്റെ ഒപ്പം അല്ലെങ്കില് ഇത്തിരി താഴെ നിന്നാല് മതി ആ ലൈനിങ് ചേച്ചി എടുക്കുമോ ചേച്ചി ആ കളറിനു പറ്റിയത് അവിടെയുണ്ടോ ആണല്ലേ കുഴപ്പമില്ലല്ലോ ആ ആ ആ ഫ്രോക്കിന് ചെറിയ പാൻറ് മതി ചേച്ചി ആ ആ ടോപ്പ് ആ അതിനൊരു പാന്റും കൂടെ വേണമെങ്കില് തയ്ച്ചോ കുഴപ്പമില്ല കാരണം അല്ലാതെയാണെങ്കിലും എന്തായാലും മുട്ടിന് താഴെ നില്ക്കുന്ന പാന്റാണെങ്കിലും കുഴപ്പമില്ലല്ലോ അല്ലാതെയും രണ്ട് ഡ്രെസ്സൊക്കെയാക്കിയിട്ട് ഇടാമല്ലോ ആ അതേ തുണിയുണ്ടോ ചേച്ചിയുടെയടുത്ത് അതിനുള്ള തുണി തികയുമോ ആണല്ലേ ആ ഞാന് ആ ഞാൻ സാധാരണ റെഡിമേഡ് ആണ് എടുത്തുകൊണ്ടിരുന്നത് ആ ഞാനങ്ങനെ ഫ്രോക്ക് തയ്പ്പിച്ചിട്ടില്ല അപ്പോളെങ്ങനെയുണ്ട് ആ തുണി വലിയ കുഴപ്പമില്ലല്ലോ അല്ലെ ഞാൻ കട്ടപ്പന വിമലയില് നിന്നെടുത്ത തുണിയാണ്

ആ ഒരുപാടുണ്ട് ആ നല്ല വിലകുറഞ്ഞ തുണികളൊക്കെ കിട്ടും ചേച്ചി ആ കോട്ടൺ സാരി എല്ലാം ആ എല്ലാ സൈസുമുള്ള തുണിയുണ്ട് നമുക്കാ ഓഫറിൻ്റെ സമയത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കില് നല്ലതായിട്ട് ഒത്തിരി തുണികള് കിട്ടും പിന്നെ ചേച്ചി ഫ്രോക്കിന് കൈ വെയ്ക്കുമ്പോള് പഫ് വെയ്ക്കാമോ പഫ് വെച്ച് മുട്ടിൻ്റെ താഴെ നില്ക്കുകയാണെങ്കില് പഫ് നല്ലതല്ലേ കാണാൻ ആ പിന്നെ എൻ്റെ ഈ ലെയ്സ് വെയ്ക്കുന്നയിടത്ത് കൂടെ എന്തെങ്കിലും ഇത്തിരി ഗ്ലേസിങ്ങുള്ള മറ്റോ തുണിയോ എന്തെങ്കിലും മുത്തോ അങ്ങനത്തെ എന്തെങ്കിലും സാധനം വെച്ചാലോ നമുക്ക് ഉടുപ്പിൻ്റെ താഴെയാണെങ്കിലും ആ നമുക്കീ ഫ്രണ്ടില് ആ ലെയ്സ് വെച്ചാലും കുഴപ്പിമില്ല അല്ലെ അപ്പോള് അതുപോലെ നമുക്ക് താഴെ ലെയ്സ് വെയ്ക്കുകയാണെങ്കിലോ ഉടുപ്പിൻ്റെ താഴെയും ലെയ്സ് വരികയാണെങ്കിലോ

പ്രിൻറ്റ് പോലെയല്ലേ ആണല്ലേ പിന്നെ അതുപോലെ നമുക്കീ ചെസ്റ്റിൻ്റെ ആ പോഷൻ വരുമ്പോള് അവിടെ എന്തെങ്കിലും ത്രെഡ് വർക്കോ അങ്ങനെയെന്തെങ്കിലും ചെയ്യുകയാണെങ്കിലോ ചേച്ചി അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ലേ ചേച്ചിക്ക് എംബ്രൊയ്ഡറി മെഷീനൊക്കെയുള്ളതല്ലേ അപ്പോള് അങ്ങനെയെന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കില് നല്ലതല്ലേ ആ ആ ചേച്ചി ഇപ്പോഴത്തെ ഒരു മോഡലൊക്കെ വെച്ച് തയ്ച്ചോളൂ എത്ര രൂപയാകും ചേച്ചി ഫ്രോക്ക് തയ്ക്കുന്നതിന് മുന്നൂറ്റിയമ്പത് അല്ലേ ആ എപ്പോള് എന്നത്തേതിന് ലൈനിങ് ചേച്ചി എടുക്കുകയാണല്ലോ അല്ലേ ആ നാനൂറ്റിയമ്പത് എത്ര ദിവസമെടുക്കും കിട്ടാൻ വേണ്ടിയിട്ട് എനിക്കൊരു കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒരു മൂന്ന് ദിവസത്തിനുള്ളില് കിട്ടുമോ തിരക്കുണ്ടോ ആ ഇപ്പോള് ഈ കല്യാണത്തിൻ്റെയൊക്കെ സമയമായതുകൊണ്ട് ഒരു മൂന്ന് ദിവസത്തിനുള്ളില് കിട്ടുകയാണെങ്കില് ഉപകാരമായിരുന്നു കാരണം ഇനി എന്തെങ്കിലും അത് ഇട്ടുനോക്കിയിട്ട് ഓൾട്ടറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കില് ആ ഞാൻ വീട്ടിലേക്ക് തന്നെ വന്നാല് പോരെ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് ആ വിളിച്ചാല് മതി പിന്നെ ചേച്ചിക്കെന്തെങ്കിലും ഡിസൈൻ ഇപ്പോഴത്തെ മോഡലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കില് കുഴപ്പമില്ല കേട്ടോ വെച്ചോളൂ കേട്ടോ

ആ ഓക്കേ ഓക്കേ